വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പോൾ ആദ്യകാലങ്ങളിലാണെങ്കില് നമ്മള് പഠിച്ചെഴുതിയെല് എഴുതിയതിനൻസരിച്ചൊക്കെ മാർക്കും തരികയുള്ളൂ അതിനുള്ള ഗ്രേഡ് തരികയുള്ളൂ മൊത്തത്തിലൊക്കെ നോക്കിയിട്ടൊക്കെ തരൂ മാർക്കുകളൊക്കെ കറക്റ്റാക്കോള്ളു എന്നാൽ ഇപ്പത്തെ കാലഘട്ടത്തില് അങ്ങനെ ഒന്നുവല്ല ഗ്രേഡ്കള് അങ്ങനെ വാരിക്കൂട്ടി അങ്ങനെ കൊടുക്ക ആണ് പഠിച്ചെഴുതിയവർക്കും പഠിക്കാണ്ട് എഴുതിയവർക്കും എല്ലാവർക്കും ഇങ്ങനെ എ ഗ്രേഡ് ബി ഗ്രേഡ് എ പ്ലസ് ആണിപ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മള് പഠിച്ച സ കാലഘട്ടത്തിലൊക്കെ ആണെങ്കില് ചിലവ് കുറവും പഠിക്കാന് ചിലവ് കൂടുതലുവാണ് പഠിച്ച് കഴിഞ്ഞാല് അതിനുള്ള മാർക്കും കിട്ടണില്ല ഇപ്പോൾ ചിലവും ഗ്രേഡും പണ്ട് പഠിച്ചുകഴിഞ്ഞാലാണെങ്കിൽ അതിനും നഷ്ടമാണ് ജോലി കിട്ടണങ്കില് ജോലിയു ഇല്ല നല്ല കൂടുതല് പഠിച്ചവർക്കാണെങ്കില് ജോലിയില്ല പഠിക്കാണ്ട് പത്താം ക്ലാസ് വരെയോ ചെറിയ ക്ലാസ്സ് പഠിച്ചവർക്കാണെങ്കിൽ പണിയുണ്ട് ഡിഗ്രി കഴിഞ്ഞും ബിടെക്കൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഇപ്പോൾ പണിയും ഇല്ലാണ്ട് നടക്കുകയാണ് ഇതൊക്കെയാണ് പഠനം കൊണ്ട് പഠിച്ചാല് ജോലി കിട്ടും വിചാരിച്ചു കൊണ്ടു എല്ലാവരും പഠിച്ചു എന്നാൽ പഠിച്ച് കഴിഞ്ഞാലാണെങ്കിലോ ജോലി ഒട്ട് ഒരെടുത്തും കിട്ടൂല